നിങ്ങളുടെ ഭാഷയില് വാര്ത്താചാനലുകള് ഉണ്ടോയെന്നു ചോദിച്ചാൽ എന്റെ ഭാഷ മലയാളമാണ് മലയാളം ആക്ച്വലി കേരളത്തിലാണ് ഉള്ളത് കേരളം ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനമാണ് അവിടെയാണ് മലയാളം സംസാരിച്ച് വരുന്നത് ഈ ഞങ്ങളെ ഈ സംസ്ഥാനത്തിലേക്ക് വേണ്ടിയിട്ട് മലയാളത്തിൽ വാര്ത്താചാനലുകളുണ്ട് കൂടുതലും മലയാളം കേരളത്തിൽ മാത്രമാണ് മലയാളത്തിലുള്ള വാര്ത്താചാനലുകൾ കാണാറുള്ളത് കാരണം മലയാളികൾ കൂടുതൽ കേരളത്തിലാണല്ലോ വല്ലപ്പോഴും മറ്റു സ്റ്റേറ്റുളില് എങ്ങാനും മലയാളികൾ ഉണ്ടെങ്കില് അവിടെ കണ്ടെന്ന് വരും ഒത്തിരി വാര്ത്താചാനലുകളുണ്ട് മലയാളത്തിലിപ്പം ഏഷ്യാനെറ്റ് മാതൃഭൂമി മീഡിയ വണ് അങ്ങനെ പലതും ഉണ്ട് പിന്നെ മലയാളം ഹിന്ദിയൊന്നുമധികം കണ്ടുവരാറില്ല കൂടുതലും ഈ നാട്ടിലുള്ളവർ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അത് മാത്രമേ കാണാറുള്ളു മലയാളത്തിലുള്ള ന്യൂസ് ചാനല്സും ഇംഗ്ലീഷിലുള്ള ന്യൂസ് ചാനല്സുമാണ് കൂടുതലും കണ്ടുവരാറുള്ളത് പിന്നെ ഇത് കാണുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പല സാഹചര്യങ്ങളറിയാന് പറ്റും പിന്നെ ആളുകളുടെ പല സിറ്റുവേഷന്സും അതുപോലെ ആളുകളെ അറിയാന് പറ്റും നമ്മുടെ ചുറ്റുമെന്തൊക്കെ നടക്കുന്നു എന്നുള്ളതറിയാന് പറ്റും പിന്നെ ഇംഗ്ലീഷ് ന്യൂസ് കാണുന്നതിന് എനിക്ക് കൂടുതല് ഞാന് പ്രിഫർ ചെയ്യുക ഇംഗ്ലീഷ് ന്യൂസാണ് എനിക്ക് കൂടുതലും ഇഷ്ടം ഇംഗ്ലീഷ് ന്യൂസാണ് കാരണം നമുക്ക് കുറച്ചുകൂടി ഇന്റര്നാഷണലി കാര്യങ്ങളറിയാന് പറ്റും പല സ്ഥലങ്ങളിൽ നമ്മൾ ലോകത്തിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കൂടുതലറിയാന് പറ്റുന്നതെനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ന്യൂസുകളില് കൂടിയാണ് പിന്നെ മലയാളത്തിലെ പല ന്യൂസിലും പലപ്പോഴും പൊളിട്ടിക്സ് ഒരു വലിയ വിഷയമായി വരാറുള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് ഓരോ ചാനലിനും ഓരോ പാര്ട്ടി എന്നുള്ള രീതിയിലൊക്ക പറഞ്ഞു കേട്ടിട്ടുണ്ട് പലപ്പോഴും എനിക്കും അത് തോന്നി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കേരളത്തിലെ കാര്യങ്ങള് കൂടുതല് അറിയണം എന്നുണ്ടെങ്കിൽ മലയാളം തന്നെ കാണേണ്ടി വരും കാരണം ഇംഗ്ലീഷ് ന്യൂസിൽ പലപ്പോഴും ഗ്ലോബലി എന്തൊക്കെ നടക്കുന്നു പല രാജ്യങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതെല്ലാം ഒരു കാപ്സ്യൂള് പോലെ തരികയായിരിക്കും അപ്പോൾ നമ്മൾ കേരളത്തില് നമുക്ക് ചുറ്റുമുള്ള ജില്ലകളിലുള്ള ആളുകള്ക്കും മനുഷ്യന്മാര്ക്കുമൊക്കെ എന്താ പറ്റുന്നത് എന്തൊക്കെ നടക്കുന്നു എന്നറിയണമെങ്കിൽ മലയാളം ന്യൂസ് തന്നെ കാണേണ്ടിവരും അങ്ങനെയുള്ള സാഹചര്യങ്ങളില് മലയാളം ന്യൂസാണ് കാണാറുള്ളത് വീട്ടിലാണെങ്കിലും പലപ്പോഴും മലയാളം ന്യൂസ് തന്നെയാണ് വച്ച് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് മലയാളികള് പൊതുവേ മലയാളി ന്യൂസ് കാണും പിന്നെ കാണുന്നത് ഇംഗ്ലീഷ് ന്യൂസായിരിക്കും